ചിത്രരചനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പെൻസിൽ ഡ്രോയിങ്ങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സിംപിൾ ആയിട്ട് വരുന്ന കാര്യംതന്നെയാണ് അപ്പോൾ പെൻസിൽ ഡ്രോയിങ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രതേകിച്ചു പഠിച്ചില്ലാ എങ്കിൽ കൂടെ തന്നെ നമുക്ക് പെൻസിൽ ഡ്രോയിങ്ങ് എന്ന് പറയുന്നത് നോക്കി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വെച്ചിട്ട് ആണെങ്കിലും നമുക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അതേസമയം വാട്ടർ പെയിൻറ്റിംഗ് ആണെന്ന് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ പെയിൻറ്റിങ് എന്ന് പറയുമ്പത്തേനും നോർമലി വീട്ടിൽ വച്ചിട്ട് വരക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വരച്ച് പ്രാക്റ്റീസ് ചെയ്യുകയ്യോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വരയ്ക്കുമ്പം പെൻസില് വെച്ചിട്ട് ഒരു ഔട്ട്ലൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തതിനുശേഷം നമുക്ക് വരച്ചു പെയ്ൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല പക്ഷെ മത്സരങ്ങൾക്ക് പുറത്തേക്ക് മത്സരങ്ങൾക്കോ അല്ലെങ്കിൽ സ്കൂളിൽ കലോത്സവ മത്സരം അങ്ങനെ എന്തെങ്കിലും വരുമ്പത്തേനും നമ്മൾ അത് ചെയ്യുമ്പത്തേനും നമുക്ക് പെൻസിലിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് വാട്ടർ പെയിൻറ്റ് എന്ന് പറയുമ്പൊത്തേനും ഓൺലി വാട്ടർ പെയിന്റ് മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അത്രയും ക്രീയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂള്ളൂ അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പേർസണലി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് വരയ്ക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പെയിൻറ്റിംഗിൻ്റെ കാര്യത്തിലോ വെല്ലുവിളി ആയിട്ട് തോന്നിയിട്ടുള്ളത് വാട്ടർ പെയിൻറ്റിംഗിൻ്റെ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എങ്ങനെയാണ് അത് മറികടക്കാറ് അതിനിപ്പം മറികടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഒരു രൂപരേഖ നമ്മുടെ മനസ്സിൽ എന്തായാലും ഇണ്ടാകും ഇങ്ങനെ ചെയ്താൽ ശരിയാകും എന്നുള്ളത് ആ ഒരു മൈൻഡ് വെച്ചിട്ട് വരയ്ക്കുന്നു എന്നുള്ളതല്ലാതെ അതിന് ഇന്ന ഇങ്ങനൊരു രീതിയിൽ ചെയ്താലെ അത് നമുക്ക് മറികടക്കാൻ പറ്റൂള്ളൂ എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല ഒരു ജസ്റ്റ് ഒരു ഊഹം വെച്ചിട്ട് വരയ്ക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രീ ഡി ഇമേജസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അതുവന്നിട്ട് മെനക്കെട്ട് ഇരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരയ്ക്കാൻ പറ്റും പെട്ടെന്നൊരു ത്രീ ഡി ത്രീ ഡി ഇമേജ് വരയ്ക്കാ വരയ്ക്കുക എന്നുപറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതുപോലെ എളുപ്പമല്ല നമുക്ക് ചിത്രരചന ചിത്രരചനയാവുമ്പോൾ നമ്മൾ വരച്ചത് വേറൊരു വരച്ചതൊരു പേപ്പറിൽ ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് വരയ്ക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടായിട്ട് പിന്നെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അതുതന്നെയാണ് നിങ്ങൾ എങ്ങനെയാണ് പരിശീലിക്കാറുള്ളത് ചെയ്ത് ചെയ്ത് തന്നെയാണ് പഠിക്കാറുള്ളത് വരച്ച് വരച്ച് തന്നെയാണ് പഠിക്കാറുള്ളത് ഇപ്പം ഏതെങ്കിലും ഒരു കോമ്പറ്റീഷന് പോകണമെങ്കിൽ തന്നെയും നമുക്ക് കോമ്പറ്റിഷൻ ഒക്കെയാണെങ്കിൽ ചെല്ലുന്ന സമയത്ത് തരുന്ന ഒരു വിഷയമാണ് അന്നേരം തരുന്ന ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ വരയ്ക്കുക അല്ലെങ്കിൽ അന്നേരം ഒരു വിഷയം അവർ തരും ആ വിഷയത്തിനനുസരിച്ച് എത്രയും ബെറ്റർ ആയിട്ട് എത്രയും നല്ലരീതിയിൽ ഒരു പേപ്പറിൽ ഒരു പെൻസില് കൊണ്ട് അല്ലെങ്കിൽ വാട്ടർ പെയിൻറ്റോണ്ട് അല്ലെങ്കിൽ ഒരു ക്രയോണ് കൊണ്ട് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന കാര്യമോ നമുക്ക് വരച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്നതാണ് വലിയ ഒരു കാര്യം എന്ന് പറയുക അപ്പം അത് നമ്മൽ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് പ്രാക്റ്റീസ് ചെയ്യുക എന്നുപറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ നമുക്ക് വന്നിട്ട് പള്ളിയിലുള കോമ്പറ്റിഷനുകൾക്കാണ് കൂടുതലും ഞാൻ പോയിട്ടുള്ളതും അപ്പോൾ പള്ളിയിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പള്ളിയിലെത്തേക്ക് ഒരു വിഷയം അവർ നേരത്തെ പറഞ്ഞിരിക്കും പള്ളിയിലെ മത്സരത്തിനുവേണ്ടി അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള പ്രാക്റ്റീസ് നല്ലരീതിയിൽ വീട്ടിൽ നിന്നിട്ട് ബൈബിൾ ഭാഗമായിരിക്കും കൂടുതലും തരിക അപ്പോൾ ബൈബിൾ ഭാഗം വന്നിട്ട് വായിച്ചിട്ട് ഏതൊക്കെ രീതിയിലുള്ള പിക്ചേഴ്സ് ആയിരിക്കും അവർ ചോദിക്കുക അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആയിരിക്കും വരക്കാൻ അവർ പറയുക എന്നുള്ളത് നോക്കിയിട്ട് വരയ്ക്കുക വരച്ച് വരച്ച് പഠിക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ ഏതെങ്കിലും ഒരു എണ്ണമായിരിക്കും ഇവർ ചോദിക്കുക അപ്പം പക്ഷെ അതിൻറ്റേതായുള്ള മത്സരങ്ങളിൽ പോകുമ്പോൾ എന്ന് പറയുമ്പം തന്നെയും അവിടെ അവർ സ്പോട്ടിൽ തരുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പം ഓൾറെഡി വരച്ച് പ്രാക്റ്റീസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞ് കഴിയുമ്പം തന്നെയും സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിൽ ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാവും എന്നുള്ളത് അപ്പം അങ്ങനെ പ്രാക്റ്റീസിലൂടെ അതായത് വരച്ചു വരച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം വേറെ എന്ത് കാര്യങ്ങളായാലും നമ്മൾ പ്രാക്റ്റീസ് ചെയ്യുന്നത് പോലെ പരീക്ഷയ്ക്കു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെയാണ് ചിത്രരചനകളിൽ പരിശീലനം പരിശീലനം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കൂടുതലും വന്നിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഐഡിയാസ് ചോദിക്കും കൂട്ടുകാരുടെ അടുത്ത് വിളിച്ചിട്ട് എങ്ങനെ ഇത് ഇങ്ങനെ ഒരു വിഷയം തന്നുകഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ഐഡിയാസ് അതിൽ പുതിയതായിട്ട് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കും അതുപോലെത്തന്നെ ടീച്ചേർസ് വീട്ടുകാർ അമ്മ അമ്മ അപ്പൻ അല്ലെങ്കിൽ വരയ്ക്കുന്ന സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കും പിന്നെ കൂടുതലും വന്നിട്ട് പിന്നെ ഉള്ളത് മൊത്തം ഈ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പം അതുകഴിഞ്ഞിട്ട് വരച്ച് നോക്കും ഇത് തന്നെയാണ് കൂടുതലായിട്ടും ചെയ്യുക ഇപ്പോഴൊക്കെയാണെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്തു നോക്കും എന്തൊക്കെ എങ്ങനെ സിംപിൾ ആയിട്ട് വരയ്ക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ട്ടിപ്പ് ആണ് ഉള്ളത് എന്നുള്ളത് നോക്കി എളുപ്പവഴിയിൽക്കൂടെ ഒക്കെ വരയ്ക്കുന്ന പരിപാടികൾ ഒക്കെയുണ്ട് എന്തായാലും പരിശീലനം നന്നായിട്ട് വരച്ച് വരച്ച് പഠിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്